പ്രാദേശിക കാലാകാരന്മാരെ പിന്തുണക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ പ്രധാന കലാസമാജമാണ് അല്ലെങ്കിൽ ഓർഗനയിസുകൾ എതൊക്കെയാണ് അത് ആർ എൽ വിയുണ്ട് കലാമണ്ഡലമുണ്ട് അങ്ങനെ ഒരുപാട് ഇതൊക്കെയുണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല പിന്നെ ദേ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് സൊസൈറ്റി ഫൗണ്ടേഷനുകളുണ്ട് കലാമണ്ഡലം അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവരെ പിന്തുണക്കാനാവശ്യമായിട്ടുള്ള നമ്മുടെ ഈ ഇടയ്ക്ക് തന്നെ കാലമണ്ഡലം സത്യ ഭാമയുടെ പരമാർശങ്ങളും അവർ ഇതിനെക്കുറിച്ച് അടിച്ചതുമെല്ലാം നമ്മൾ കണ്ടതല്ലേ മറ്റേ ആർ എൽ വി രാമകൃഷ്ണനെ കാക്കയുടെ നിറമായിട്ട് ഇതാക്കുകയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പോൾ അവരുടെ കാലമണ്ഡലം എന്നുള്ള പേര് മാറിയല്ലോ ഇപ്പോൾ വെറും സത്യഭാമയായല്ലോ അന്നേരം അത് നമ്മുടെ കലാകാരന്മാരെ പിന്തുണക്കുന്നത് കൊണ്ടല്ലേ ഇപ്പം അവർക്ക് അങ്ങനെയൊരു പരാമർശം വന്നപ്പോൾ അവർ പ്രതികരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തത്